ഒരവസരം ലഭിച്ചാല് ഞാൻ ഇന്ത്യയിലെ കലാ രൂപങ്ങളിൽ നിന്നും കഥകളി മറ്റു രാജ്യങ്ങളില് കാണിക്കാനാഗ്രഹിക്കുന്നു ഇത് കേരളത്തിൻ്റെ പരമ്പരാഗത നൃത്ത കലയായ കഥകളി അതിൻ്റെ ശ്രേഷ്ഠമായ കഥാ പ്രസംഗം മനോഹരമായ വേഷങ്ങളും നൃത്താനുഭവങ്ങളും കൊണ്ട് വളരെ അധികം ലോകത്ത് വിസ്മയിപ്പിക്കുന്നൊരു കാര്യമാണ് കഥകളി അതിന്റെ സമ്പന്നമായ ശൈലികളെയും ആകർഷകമായ അവതരിപ്പിലുമാണ് ശ്രദ്ധേയമാകുന്നത് പരമ്പരാഗതമായി രാത്രിയിൽ ക്ഷേത്രങ്ങളിലോ അതിനോട് ചേർന്ന സ്ഥലങ്ങളിലോ ആണ് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ കഥകളിയുടെ സംഗീതത്തിന്റെയും നൃത്തത്തിൻ്റെയും ഒര് ഇത് നടത്താറുണ്ട് അപ്പോള് ഇതിൻ്റെ മുഖ്യ വിശേഷം അതിൻ്റെ വേഷങ്ങളും മുഖ ഭാവങ്ങളുമാണ് ഈ ഒരു വേഷം കെട്ടുന്നത് കുറേ സമയമെടുക്കും അത് ചെയ്യുന്ന കലാകാരന്മാർ അതിന് അതിന് ആയിട്ട് അത്ര മാത്രം നിൽക്കുന്നോണ്ടാണ് ഇത് ചെയ്യുന്നത് കഥകളയുടെ വേഷങ്ങളും രൂപങ്ങളും സൗന്ദര്യം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് നവാനുഭവമാണ് നൽകുന്നത് ഓരോ കഥാപാത്രിന്റെയും വ്യത്യസ്തമായ വർണ്ണങ്ങളും ഭാവങ്ങളും ഉള്ള വേഷങ്ങളുണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഈ വേഷം കാരണം ചുവപ്പും പച്ചയും കറുപ്പും വെള്ളയും മഷിയും വർണ്ണങ്ങളും കൊണ്ട് വാമരം കഴിച്ച് താര യോഗ്യമായ അലങ്കാരങ്ങളും വസ്ത്രങ്ങളും ധരിച്ചാണ് രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് കഥകളി അല്ലാതെ വേറെയും പല നൃത്ത രൂപങ്ങളും മറ്റ് കലാ രൂപങ്ങളും നമ്മുടെ ഭാരതത്തിലുണ്ട് കേരളത്തിലുമുണ്ട് അങ്ങനെ കുറച്ച് ഒരു നൃത്ത രൂപങ്ങളായ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിവയും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് വളരെയധികം ആകർഷകമായൊരു അനുഭവമായിരിക്കും കൊടുക്കുക അപ്പോള് ഇങ്ങനത്തെ പല നൃത്ത രൂപങ്ങളും ലോകത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനും കാണിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതല്ലാതെ കേരളത്തില്ത്തന്നെ വേറൊരു തനത് കലാ രൂപമായ തെയ്യം അത് കേരളത്തിൻ്റെ ഒരു ദേവാരാധന കലയാണ് അതിൻ്റെ ഭക്തി സാന്ദ്രമായ അവതരണവും ചായവും മുടിയും കൊണ്ട് സവിശേഷമായ വേഷങ്ങളും ശാന്തവും ഭീതിയുമായിട്ടുള്ള മുഖ ബഹുമാനമുള്ളതും അതെല്ലാം തെയ്യത്തെ വളരെയധികം വ്യത്യസ്തമായ കലാ രൂപമാക്കുന്നു അത് വടക്കൻ കേരളത്തിലാണ് കൂടുതൽ കണ്ടുവരാറുള്ളത് അത് കേരളത്തില് ബാക്കി ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് പോലും വളരെയധികം ആകർഷകമായ ഒരു അനുഭവമാണ് അപ്പോള് ലോകത്തിലുള്ള ബാക്കി ഉള്ള പല സ്ഥലങ്ങളിലുമുള്ളവർക്ക് ഇത് വളരെ വലിയൊരു അനുഭവമായിരിക്കും കൊടുക്കുക എല്ലാ കലാ രൂപങ്ങളും അതിൻ്റെ സൗന്ദര്യം പാരമ്പര്യവും കഥാ പ്രസംഗവും നോക്കാം പഴമയുള്ള ആൾക്കാർക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹിമയും സൗന്ദര്യവും പരിചയപ്പെടുത്താൻ കഴിയും അതിനാണ് നമ്മുടെ പാരമ്പര്യമായ സംസ്കാരവും കഥ കലാ രൂപങ്ങളും ലോകത്തിൻ്റെ മുന്നിൽ ഉണർത്താനും ബഹുമാനത്തോടെ പ്രചരിപ്പിക്കാനും ഇവയെ പ്രദർശിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇങ്ങനത്തൊരു അവസരം കിട്ടിയാൽ ഞാൻ പല കലാ രൂപങ്ങളെയും ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരാനും കാണിക്കാനും ആഗ്രഹിക്കാൻ കാരണം